സാധാരണ കോഴികളെ ബാധിക്കുന്ന അസുഖമാണ് കോഴിവസന്ത എന്നു പറയുന്ന രോഗം അത് വന്നു കഴിഞ്ഞാൽ ആ വരുന്ന കോഴികളെ നമ്മൾ മാറ്റി പാർപ്പിക്കും ആ കോഴികളെ മറ്റ് കോഴികളിൽ നിന്നും വേർതിരിച്ചിടും എല്ലാ കോഴികളുടെയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ മറ്റുള്ള കോഴികളെയും ഈ രോഗം ബാധിക്കും അത് കാരണം ഈ ഇതിനെ ഏത് രോഗമെന്ന് കണ്ടെത്തി അതിന് ആ തക്ക സമയത്ത് ട്രീറ്റ്മൻ്റ് കൊടുത്ത് കഴിഞ്ഞാൽ അതിനെ രക്ഷപ്പെടുത്താവുന്നതാണ് എന്നാൽ പൂർണമായിട്ടും നമക്ക് രക്ഷപെട്ടു എന്ന് പറയാനും കഴിയ്കയില്ല ചിലതിനെല്ലാം രോഗം വന്നു കഴിഞ്ഞാൽ അത് രക്ഷപ്പെടില്ല അത് അതിന് എന്തെങ്കിലും പറ്റും അതുകാരണം നമ്മൾ എപ്പോഴും അതിൽ ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കും എന്തെങ്കിലും അസുഖമോ പെട്ടെന്ന് അതിനു അസുഖം കാണുകയാണെങ്കിൽ അതിന് നേരെ നമ്മൾ അതിനു വേണ്ട മരുന്നുകൾ കൊടുത്ത് അതിനെ സംരക്ഷിക്കും ഇല്ലെങ്കിൽ മറ്റ് നമ്മുടെ എല്ലാ കോഴികളെയും അത് ബാധിക്കും കോഴികളെ ബാധിക്കാതിരിക്കണമെങ്കിൽ ആദ്യം വരുന്ന രോഗം വരുന്ന കോഴികളെ കൂട്ടത്തിൽ നിന്നും മാറ്റി പാർപ്പിക്കണം അതിനു ശേഷം ഓരോ ദിവസവും അതിനെ നിരീക്ഷിച്ച് കൊണ്ടിരിക്കണം മരുന്നും വെള്ളവും ആഹാരവും അതിന് കൃത്യമായി കൊടുത്തു കൊണ്ടിരിക്കണം അങ്ങിനെ കൊടുത്തു കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എല്ലാ മറ്റ് കോഴികൾ രോഗമില്ലാത്ത കോഴികൾക്ക് ഒന്നും സംഭവിക്കില്ല രോഗം വന്ന കോഴികൾക്ക് ആരോഗ്യത്തുലൂടെ തിരിച്ചു വരുന്ന ഇതും കാണും ഇല്ലാതെ പോകുന്നതും കാണും പൂർണമായും നമുക്ക് അത് കിട്ടും എന്ന് ഉറപ്പു പറയാൻ പറ്റത്തില്ല അത് വരാതെ സൂക്ഷിക്കുകയാണ് നല്ലത് വരാതിരിക്കുന്നുവെങ്കിൽ നമ്മൾ എപ്പോഴും കോഴികളെ ഒരേ ശ്രദ്ധയോടെ നോക്കുകയും വേണം അവിടെ ക്ലീൻ ചെയ്യുകയും വേണം അതിന് അതിന് ഒരു ആപത്തുമില്ലാതെ നോക്കാൻ നല്ല സമയം ചെലവഴിക്കേണ്ടി വരും നമ്മൾ അതിൻ്റെ കൂടെത്തന്നെ ഉണ്ടായിരിക്കണം അതിന് എപ്പോഴും നോക്കിയെങ്കിൽ മാത്രമേ ഏതിനാണ് അസുഖം വന്നതെന്നും ഏതിനാണ് അസുഖം വരാത്തതെന്നും അറിയാൻ പറ്റുകയുള്ളൂ പറ്റുകയുള്ളൂ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ സംരക്ഷിക്കാൻ കഴിയൂ